സത്യം പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ മാത്രേ ഈ സ്പോർട്സിനൊരു പ്രാധാന്യം കൊടുക്കാത്തത് ഉള്ളു ഇപ്പം എൻ്റെ നാട്ടിലാണേൽ തന്നെ ഞങ്ങള് കുറെ പിള്ളേര് അതായത് കേസിൽപ്പെട്ട് കിടക്കുന്ന ഒരു പറമ്പെടുത്ത് അത് കിളച്ച് അതായതൊരു മാസത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാണവിടെ അത് കിളച്ച് അത് നല്ല നിരപ്പാക്കി ഞങ്ങളവിടെ ഫുട്ബോള് കളിക്കുവാണിപ്പോൾ ആരും അതായത് ഒരു സഹായം പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ നല്ലൊരു കാര്യത്തിന് അതായത് ഞങ്ങളാരും ഫോൺ ഫോണിൽ ഉപയോഗിച്ച് വീട്ടിലിരിക്കുന്നില്ല ആ സമയം ഞങ്ങള് കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കഴിവുള്ള കുറെ പേരുണ്ട് അവര് വരുന്നു കളിക്കുന്നു വീട്ടിൽ പോവുന്നു ഞങ്ങളെപ്പറ്റി ആരും ഒന്നും ചോദിക്കുന്നില്ല അത് ഞങ്ങൾക്കിതുവരെ സ്പോൺസർഷിപ്പ് പോലും നിലവിൽ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് നല്ലൊരു ടീമുണ്ട് ഞങ്ങള് കുറെ ട്രോഫീസും വിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കമ്പനികളും ഒരു സർക്കാരും ആരും ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല അതുപോലെ തന്നെ എന്താ സംസ്ഥാന ദേശീയ അന്തർ ദേശീയ തലങ്ങളിൽ കായികമത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളെ ഏത് തരത്തിലാണ് സഹായിക്കുന്നത് ചോദിച്ചാൽ ഒരു തരത്തിലും സഹായിക്കുന്നില്ല ഞങ്ങളുടെ കോളേജിനിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി മാച്ചിന് പോയപ്പം അവര് പോയ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അതായത് അതായത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റില് നിന്നും നിന്നും കിടന്നും അങ്ങനെ ഒക്കെയാണ് പോയത് വളരെ കഷ്ടപ്പാടായിരുന്നു പിന്നെന്താ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിലും ഇന്ത്യ മൊത്തത്തിൽ സ്പോർട്സിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഇപ്പോൾ രണ്ട് വർഷം മുന്നേ തന്നെ ഇന്ത്യ കപ്പടിച്ചു കപ്പടിച്ചപ്പഴത്തേന് കപ്പടിച്ചു കപ്പടിച്ചപ്പഴത്തേനും ഫോട്ടോ എടുക്കാൻ കുറെ പേര് വന്നു പക്ഷേ അതിനൊരു സമ്മാനം അതായതൊരു പ്രൈസ് അല്ലേ ഇന്ത്യൻ ഫുട്ബോളിലേക്കൊരു സംഭാവന നൽകാനായിട്ട് ആരും ഇന്നേ വരെ വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇന്ത്യൻ കമ്പനികൾ അങ്ങനെ ആരും സ്പോർട്സിനിതുവരെ ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല